ഞാന് ചെടികളെ ഉപദേശം അതായത് നന്നായിട്ട് നോക്കാനുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ മുമ്പ് കുറച്ചുകാലം മുമ്പ് വരെ കൃത്യമായിട്ട് എൻ്റെ വീട്ടിലെ അച്ചാച്ചൻ കറക്ടായിട്ട് പറഞ്ഞുതരുമായിരുന്നു ആളു മരിച്ചു പിന്നെ അച്ചൻ കുറേക്കാലം പറഞ്ഞു തന്നു അപ്പോ അച്ഛൻ ഇപ്പൊൾ അതായത് അവർ പഴയ രീതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് പഴയകാലത്ത് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്ന രീതി അവർ ആ കാര്യങ്ങൾ ഒക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യണന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിഭവനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാർഷിക വിത്തുൽപ്പാദന കേന്ദ്രങ്ങൾ അങ്ങനത്തെ എന്താ പറയുക അല്ലെങ്കിൽ കൃഷിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനത്തെ കുറെ നമ്മുടെ സർക്കാര് തുടങ്ങിയിട്ടുണ്ട് അപ്പൊൾ അവിടെ പോയിക്കഴിഞ്ഞ പുതിയ ടെക്നോളജികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇപ്പോ നമ്മള് പണ്ട്ന്ന് പറയുമ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാ അതായത് സയൻറ്റിഫിക് ആയുള്ള കാര്യങ്ങളൊന്നും നമ്മള് ചെയ്യാറില്ലാ ഇപ്പോൾ നേരേ മറിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊൾ അവിടെ എന്താണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് വെക്കാൻ പറ്റുക കൂടുതലായിട്ട് എന്തുണ്ട് ഇപ്പൊൾ നമ്മള് അതെ നിലക്ക് പോകാണെന്ന് പറയുമ്പോൾ എന്ത് സാധനം കൂടുതലായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങള് വേറെ ഉദ്ദേശിക്കാൻ എന്ത് വെയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചെടി പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പൊൾ ഇന്ന ഇന്ന വളമാണ് അതിൽ ചേർക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്ന് പറഞ്ഞുതരും അപ്പോൾ കൃഷി ഓഫീസറ് വരും നമ്മുടെ മണ്ണ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് പോകും അങ്ങനത്തെ എന്താ പറയുക നമുക്ക് എളുപ്പമായിട്ടുള്ള രീതിയില് എങ്ങനെ നമ്മുടെ ചെടികൾ വെക്കാം അതിൽ നിന്ന് കൂടുതൽ എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരും